എനിക്ക് ഓര്മ്മ ശരിയാണെങ്കിൽ എന്നെ ആദ്യമായിട്ടു മലയാളം പഠിപ്പിച്ചത് എന്റെ വീട്ടുകാരാണെന്നാണ് എന്റെ ഓര്മ്മ ഓക്കെ നമ്മുടെ വലിയ വെക്ടി വ്യക്തികളെ കൊണ്ടു നമ്മൾ അ ആ ഇ എഴുതിപ്പിക്കാറുള്ളത് പോലെ എന്നെയും എഴുതിപ്പിച്ചതായിരിക്കാം എനിക്ക് ഓര്മ്മ കറക്റ്റ് ആയിട്ട് ഇല്ല എങ്കിലും എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് എന്റെ അമ്മ ആണ് അമ്മ എന്ന വാക്ക് അ അമ്മ എന്നാണ് ഞാന് ആദ്യമായിട്ട് ഉച്ഛരിച്ചത് പിന്നെ അങ്ങനെ എന്നെ പഠിപ്പിക്കാന് വേണ്ടി എന്റെ അമ്മ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചായിരുന്നു കുഞ്ഞുന്നാൾ മുതല് തന്നെ അമ്മ വൈകുന്നേരസമയങ്ങളിൽ ഒത്തിരി സമയം കണ്ടെത്തി പ്രത്യേകിച്ച് അമ്മക്ക് ജോലി ഇല്ലായിരുന്നു അപ്പോൾ വൈകുന്നേര സമയങ്ങളില് എന്നെ പിടിച്ചിരുത്തി ഓരോ വാക്കുകളും എനിക്കു പറഞ്ഞു തരുവായിരുന്നു അക്ഷരങ്ങളും മലയാളത്തിലെ അക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും എല്ലാം പറഞ്ഞു തരുമായിരുന്നു ആദ്യമൊക്കെ ഒന്നുമേ ഈ ഫോൺ എന്ന സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെയിരിക്കുമ്പോള് വീട്ടിൽ ഞാനായിരുന്നു മൂത്ത കൊച്ച് അപ്പോൾ അമ്മക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു പപ്പ പണിക്ക് പൊയ്ക്കഴിയുമ്പോഴും അമ്മക്കു ജോലി കഴിയുമ്പോഴും എന്നെ ഒത്തിരി പ്രോത്സാഹിപ്പിച്ചോ എന്നു ചോദിച്ചാൽ പ്രോത്സാഹിപ്പിച്ചായിരുന്നു എന്റെ കൈ വലിച്ചാൽ പോലും അമ്മ എന്റെ കൈ വിടത്തില്ലായിരുന്നു ഓരോ ലെറ്റേഴ്സിലും എന്റെ അമ്മ എന്റെ വിരൽ വെച്ചായിരുന്നു ഇങ്ങനെ പറഞ്ഞു തന്നത് അ ആ ഇ ഈ അങ്ങനത്തെ അക്ഷരങ്ങൾ അതിനു ശേഷം എനിക്കു വായിക്കാന് കൊതി വന്നു തുടങ്ങി കൊതി വരുന്നുണ്ട് എന്നു കണ്ട എന്റെ അമ്മ ചെറിയ ചെറിയ കഥ ബുക്കുകളൊക്കെ വായിച്ചു തരാന് വാങ്ങിച്ചു തരാനും അതിന്റെ കഥകള് പറഞ്ഞു തരാനും തുടങ്ങി ആദ്യം കഥകള് പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഒത്തിരി ഇന്ട്രസ്റ്റ് ആയിരുന്നു അപ്പോൾ അതനുസരിച്ചു ഞാന് തന്നെ ചെറുതായിട്ട് അക്ഷരങ്ങള് കൂട്ടി വായിക്കാന് തുടങ്ങി അതിനുശേഷം ഞാന് വായിക്കുന്നത് കണ്ടപ്പോ അമ്മയ്ക്കും ഒരു ഇൻട്രസ്റ്റ് തോന്നി അമ്മ ഞാന് വായിക്കുന്നത് അനുസരിച്ചു ഒത്തിരി ഒത്തിരി ബുക്കുകള് മലയാളത്തിലെ ഒത്തിരി ഒത്തിരി ബുക്കുകൾ ബുക്കളൊക്കെ കഥ ബുക്കുകൾ ആയിരുന്നു ആദ്യം ഞാൻ വായിച്ചത് ബാലരമ അങ്ങനത്തെ കൊ ബുക്കുകള് ആയിരുന്നു വായിച്ചത് അതിനുശേഷം ഞാന് അതിന്റെ കൂടെ എനിക്ക് ഒത്തിരി വായിക്കാന് തുടങ്ങിയപ്പോൾ കുറച്ചു പറയുന്നതനുസരിച്ച് കുറച്ചും കൂടി വലിയ വലിയ ബുക്കുകൾ എന്നു വെച്ചാൽ കഥ ബുക്കുകൾ വിട്ടിട്ടു വേറെ ബുക്കുകള് വാങ്ങിച്ചു നല്ല നല്ല വ്യക്തികളുടെ ബുക്കുകള് വാങ്ങിച്ചു തരാനും ലൈബ്രറിയിൽ ചെന്നു ബുക്കുകള് എടുത്തു കൊണ്ടു വന്ന് എനിക്ക് അതിന്റെ അര്ത്ഥങ്ങള് പറഞ്ഞു തരികയും അതിനെക്കുറിച്ചു പറ വായിക്കാന് എന്റെ അമ്മ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഞാന് വായിക്കുന്നതു വായിക്കാന് പറയുകയും എന്റെ അമ്മ അതു കേട്ടിരിക്കുകയും ചെയ്യും അങ്ങനെ എന്തെങ്കിലും തെറ്റുകള് ഉണ്ടെങ്കില് പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു അതിനു ശേഷം അങ്ങനെ എനിക്ക് വായിക്കാനും നല്ല ആസ്പുട്നിസിൽ വായിക്കാനും പറ്റും പിന്നെ നന്നായിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റുമായിരുന്നു അതിനു ശേഷം എനിക്ക് അതിന്റെ ഗുണം എന്തെന്നു വെച്ചാൽ ഇപ്പോഴത്തെ തലമുറകൾ വെച്ചാൽ അവര്ക്കു കൂടുതലായിട്ടും താത്പര്യം മൊബൈൽ ഇന്റര്നെറ്റ് അങ്ങനെയൊക്കെയാണ് ടി വി ടെലിവിഷന് പിന്നെ കമ്പ്യൂട്ടര് അതൊക്കെയായിരുന്നു അപ്പം ഇപ്പം എനിക്ക് പറ്റുന്ന ഒരു ഉപകാരം എന്നു വെച്ചാൽ അന്ന് അത്രയും കഷ്ടപ്പെട്ടു പഠിച്ചതു കൊണ്ട് ഇപ്പം എനിക്ക് ഒരുപയോഗം എന്നു വെച്ചാൽ ഒത്തിരി പേരെ എന്റെ ചുറ്റുപാടും അറിയാത്ത മലയാളം വായിക്കാനോ പറയുവാനോ ബുദ്ധിമുട്ടുന്ന മക്കളുണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ എല്ലാം വിളിച്ചിരുത്തി എനിക്ക് അവര്ക്ക് മലയാളം പറഞ്ഞു കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും മലയാളം വായിക്കാന് വേണ്ടി അവര്ക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കുവാനും എന്റെ അമ്മ എന്ത് ടെക്നിക്കാണോ എനിക്ക് ഉപയോഗിച്ചത് എന്നു വെച്ചാൽ കഥ ബുക്കുകളൊക്കെ വായിച്ചു ഞാന് ആദ്യം അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ ആ കഥ പറയുമ്പം കൊച്ചുങ്ങളാകുമ്പം കഥ കേൾക്കാന് ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ സൊ അപ്പം അവര്ക്ക് ആ കഥ വായിക്കുന്നതു കൊണ്ട് മ് ബ ബാ കഥപറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് അവര്ക്ക് കഥ കേൾക്കാനാഗ്രഹമായിരുന്നു അപ്പം അങ്ങനെ കഥ കേൾക്കുന്നതിലൂടെ അവരെ കൊണ്ടു തന്നെ പയ്യെ പയ്യെ ഞാന് വായിക്കാന് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒത്തിരി മക്കൾക്ക് അങ്ങനെ കഥ ബുക്ക് വായിക്കാന് ഇൻട്രസ്റ്റ് വന്നു മലയാളം വായിക്കാന് അതിലൂടെ അവർക്ക് മലയാളം അവരറിയാതെ തന്നെ അവർ മലയാളം വായിക്കുന്നും ഉണ്ടായിരുന്നു പിന്നീടാണവര്ക്ക് മനസ്സിലാകുന്നതു നമ്മൾ മലയാളം വായിക്കാന് പഠിക്കുന്നു എന്നുള്ള കാര്യം അതിനു ശേഷം അവർ തന്നെ എന്നെ സഹായം കൂടാതെ അവർ തനിയെ വായിക്കാനും പഠിക്കാന് തുടങ്ങി അപ്പം എനിക്ക് വലിയൊരു സംതൃപ്തി ഉണ്ടായിരുന്നു കാരണം ഞാന് അറിഞ്ഞ വിദ്യ എനിക്ക് മറ്റുള്ളവര്ക്കു പറഞ്ഞു കൊടുക്കാന് സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം ഉണ്ട് അങ്ങനെ സന്തോഷമെന്നു വെച്ചാൽ ഇപ്പോൾ മലയാളം വായിച്ചതു കൊണ്ട് എനിക്കുപയോഗങ്ങളെന്നു വെച്ചാൽ എവിടെയും എന്തും പറയാൻ സാധിക്കും അതുപോലെ തന്നെ മലയാളത്തിൽ പെട്ടെന്ന് എന്തെങ്കിൽ ഉണ്ടെങ്കിൽ പറയാനോ മറ്റുള്ളവർക്കു പറഞ്ഞു കൊടുക്കാനോ എനിക്കു സഹായിക്കും സാധിക്കും